എൻ്റെ രണ്ടാമത്തെ പ്രോഡക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെയർ ജെല്ലാണ് ഹെയർ ജെല്ലിനെക്കുറിച്ച് പറയാനാണെങ്കില് നമ്മളിപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഹെയർ ജെല്ലെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷെ അതുകൊണ്ട് ഭയങ്കര നമുക്ക് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും കാരണമെന്താ വെച്ചു കഴിഞ്ഞാല് ഈ ഹെയർ ജെൽ നമ്മളേതു നേരവും നമ്മള് യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ തലമുടി കൊഴിയാനും പല രീതിലുള്ള മാനസിക പ്രശ്നങ്ങളും തലവേദന എടുക്കുക തലയ്ക്ക് ഭയങ്കര ഭാരം തോന്നിക്കുക തല ഇപ്പോൾ നമ്മൾക്ക് കണ്ണൊക്കെ ചെന്നിക്കുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടക്കിടയ്ക്ക് വരും ചെന്നിക്കുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രൈൻ അപ്പോൾ അത് നമുക്ക് ഇടക്കിടയ്ക്ക് വരുന്നൊരു സംഭവായി മാറും അപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പോൾ മുടികൊഴിച്ചലും തീരെ എന്താ പറയുക ഇപ്പോൾ നമ്മളെ ആ മുടിയൊക്കെ ചിലപ്പോൾ നല്ല രീതിയില് നിൽക്കുമായിരിക്കും പക്ഷെ അതുകൊണ്ടൊക്കെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ തലയ്ക്കും നമ്മുടെ ശരീരത്തിനൊക്കെ ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഹെയർ ജെൽ യൂസ് ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല നമ്മുടെ ഇപ്പോൾ ഒരു മുടി നമ്മളിപ്പോൾ ഹെയർ ജെല്ലൊക്കെ തേച്ച് നല്ല സെറ്റാക്കി വെച്ച് നല്ല ഒതുക്കിയെല്ലാം സെറ്റപ്പാക്കി വെച്ച് നമ്മള് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ചെറുതായിട്ടൊന്നു മഴ നനഞ്ഞു മഴ നനഞ്ഞു കഴിയുമ്പോൾത്തന്നെ ഈ ഒരു ഹെയർ ജെല്ലൊക്കെ കൂടിയിട്ട് ഈ ഞോള രൂപത്തിലങ്ങാവും അപ്പോൾ നമ്മുടെ കണ്ണിലേക്കൊക്കെ ഒലിച്ചിറങ്ങി നമ്മളെ കണ്ണിലൊക്കെ ഫുൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആവും ചിലപ്പോൾ കാഴ്ചവരെ നമുക്ക് നഷ്ടപ്പെടാം അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഹെയർ ജെല്ലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്